ഇന്ത്യയുടെ ആദ്യത്തെ സംസ്കാരിക പൈതൃകം എന്നു പറയുന്നത് സിന്ധു നദിയുടെ തീരത്തു ജീവിച്ചു പോന്നിരുന്ന ഒരുപറ്റം ആളുകളെക്കുറിച്ചു പറയുകയാണ് ആദ്യം പ്രതിപാദിക്കേണ്ടത് അവർ പിൻപറ്റിപ്പോന്നിരുന്ന ജീവിതരീതിയാണ് പിന്നീട് പൊതുവായി ഇന്ത്യൻസ് എന്ന വിളിപ്പേരിലേക്കു മാറുകയും അവരെയാണ് പിന്നെ ഇന്ത്യക്കാർ എന്നു പ്രതിപാദിച്ചത് എന്നു ചരിത്ര രേഖയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പിന്നെ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെകുറിച്ച് പറയുമ്പോൾ അദ്യമായി പറയേണ്ടത് ഇന്ത്യയുടെ നാനാത്ത്വത്തിൽ എകത്ത്വം എന്ന സവിശേഷതയെക്കുറിച്ചാണ് നാനാത്ത്വത്തിലേകത്ത്വം എന്നു പറഞ്ഞാൽ ഇന്ത്യയിൽ നാനാജാതി ജീവിതരീതികൾ പിൻപറ്റിപോന്നിരുന്നെങ്കിലും ഈ ഇന്ത്യാക്കാരുടെ എല്ലാം ഉള്ളിൽ നാം ഇന്ത്യക്കാരാണ് എന്ന് ഉള്ള ബോധമാണ് അവരെ മുൻപോട്ടു നയിച്ചു കൊണ്ടിരിക്കുന്നതു വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണെങ്കിലും വിവിധ മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരുടെ എല്ലാം ഉള്ളിലുണ്ടായിരിക്കുന്ന ഒരു പൊതു ബോധം എന്നു പറയുന്നത് എന്തൊക്കെ വൈവിധ്യങ്ങളുണ്ടെങ്കിലും നാം എല്ലാവരും ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരു പൊതു ബോധം ആണ് അവരെ ഇന്ത്യക്കാർ എന്ന രീതിയിൽ മുന്നോട്ടു നയിക്കുന്നത് പിന്നെ സംസ്കാരികത്തേ കുറിച്ചു പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇന്ത്യയിൽ ജീവിച്ചു വന്നവരുടെ വിവാഹം ഒരു സവിശേഷമായ മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്ഥമായ ഒരു വിവാഹരീതിയാണ് ഇന്ത്യക്കാർ കൂടുതലായിട്ടും പിൻപറ്റിപ്പോ പൊന്ന് പോരുന്നത് അത് അറേഞ്ച്ഡ് മാരേജാണ് ഇന്ത്യയിലുള്ള ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും നടന്നു കൊണ്ടിരിക്കുന്നത് അറേഞ്ച്ഡ് മാരേജെന്നു പറയുമ്പോൾ ആദ്യം അവരുടെ വീട്ടുകാർ വിവാഹത്തിനു മുൻകൈ എടുത്തുകൊണ്ട് ആ ഒരു വധു ആയാലും വരനെ കണ്ടു പിടിച്ച് അത് ആണ് പിന്നത് വിവാഹത്തിലേക്കു മാറുന്നതും മറ്റും മുന്നോട്ടു പോകുന്നത് അതുപോലെതന്നെ ഇന്ത്യയുടെ വിവിധ ഭാ സംസ്ഥാനങ്ങളിലും വിവിധതരത്തിലുളള വസ്ത്ര രീതികളാണ് പിൻപറ്റി പോരുന്നത് സിക്കിം ബൂട്ടാൻ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു രീതിയാണെങ്കിൽ നമ്മുടെ കേരളത്തിലും നമ്മുടെ തൊട്ടടുത്തു കിടക്കുന്ന സംസ്ഥനങ്ങളിലൊക്കെ വസ്ത്രരീതിയിലൊക്കെ മാറ്റങ്ങളുണ്ട് അതുപോലെതന്നെയാണ് പാചകം പാചക രീതികളും ഭക്ഷണരീതികളും ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് അതുപോലെതന്നെ ഉത്സവങ്ങൾ പല സംസ്ഥാനങ്ങളിലും അവരുടെ ദേശീയ ഉത്സവങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടേ കേരളത്തിലാണെങ്കിൽ നമുക്ക് ദേശീയ ഉത്സവം ആയി നമ്മൾ കൊണ്ടാടുന്നത് നമ്മുടോണമാണ് അതുപോലെതന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്താണെങ്കിൽ തൊട്ടടുത്തുള്ള നമ്മളുടെ സംസ്ഥ തമിഴ്നാട്ടിലാണെങ്കിൽ അവിടേ പൊങ്കലാണ് അവരുടെ പ്രധാന ഉത്സവമെന്നു പറയുന്നത് അതുപോലെതന്നെ എല്ലാ സംസ്ഥാനത്തേക്കും അവരുടേതായ ഓരോ ആയോധന കലകളുണ്ടായിരിക്കും ഓരോ സംസ്ഥാനത്തും അവരുടെ ജീവിതരീതിക്കനുസരിച്ചുള്ള ആയോധന കലകളാണ് ഓരോ ആളുകളും പിന്തുടർന്നു പോന്നിട്ടുളളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നാൽ അന്ന് ഒരു വേറെരീതിയിലുള്ള ഒരു സാംസ്കാരിക രീതിയാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ സംസ്കാരത്തെയും കുറിച്ചു പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് മുൻപും അതിനു ശേഷമുള്ള രീതിയെ രണ്ടും വ്യത്യസ്തമാണ്